ഞാൻ സാധാരണയായി ഈ അങ്ങാടികളിലും മറ്റും ഉള്ള പുസ്തകച്ചന്തകള് കാണുമ്പോൾ അവിടെ കയറി പരിശോധിക്കാറുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങള് അവടുന്ന് വാങ്ങാറുണ്ട് ചിലപ്പോൾ അവിടുന്ന് കിട്ടാത്ത പുസ്തകങ്ങള് ബുക്ക് സ്റ്റാളുകളിൽ കയറിയിട്ട് വാങ്ങാറുണ്ട്

ചന്തകളിൽ നിന്ന് വാങ്ങുമ്പോൾ പുസ്തകങ്ങൾക്ക് ഏകദേശം പകുതി വിലയൊക്കെയേ വരാറുള്ളൂ അനേകം ആളുകള് ഉപയോഗിച്ചതിന് ശേഷം ഇവര് സംഭരിച്ച് വിൽപ്പന നടത്തുന്ന പുസ്തകങ്ങളായത് കൊണ്ട് വില പൊതുവേ കുറവായിരിക്കും പക്ഷേ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഇതിൻ്റെ മുഴുവൻ വിലയും കൊടുത്താലേ നമുക്കത് കിട്ടുകയുള്ളു പക്ഷെ എന്തായിരുന്നാലും കുറച്ചും കൂടി നമുക്ക് വായിക്കാനും കാണാനും ഒക്കെ ഒരു സന്തോഷം കിട്ടുന്നത് ആ പുസ്ത പുതിയ പുസ്തകങ്ങള് വാങ്ങി വായിക്കുമ്പോൾ തന്നെയാണ് മറ്റേ പഴയ പുസ്തകൾങ്ങളിൽ ചിലപ്പം ചില പേജുകളൊക്കെ നഷ്ടപ്പെടാനും അതിൻ്റെ തുടർച്ച കിട്ടാത്തയും അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇത് നമ്മള് ചന്തയിൽ നിന്ന് വാങ്ങുമ്പോൾ ഓരോ പേരും പരിശോധിച്ച് ഇത് ഫുള്ളുണ്ടോ മുഴുവനായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുവന്ന് വായിക്കുമ്പഴേ ഇതില് മുഴുവൻ പേജുകളും ഇല്ല എന്ന് നമുക്കറിയാൻ കഴിയുകയുള്ളു അതുകൊണ്ട് പൊതുവെ പൊതു എനിക്ക് താൽപ്പര്യം പുതിയ പുസ്തകങ്ങള് വാങ്ങുന്നതിലാണ് ഞാൻ പരമാവധി അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പുസ്തകച്ചന്തയിൽ നിന്ന് വാങ്ങിയിട്ടില്ല എങ്കിലും ഉണ്ടെങ്കിലും വളരെ കുറച്ച് പുസ്തകങ്ങള് മാത്രമെ വങ്ങിയിട്ടുള്ളു